ഹലോ നിങ്ങളുടെ കയ്യിൽ ഷോപ്പില് നിന്നേ ഞാൻ ഒരു ഷൂ ഓണ്ലൈൻ ആയിട്ട് ഫ്ലിപ്ക്കാർട്ടില് കൂടെ വാങ്ങിയിരുന്നു അതെനിക്ക് ഡെലിവറി ചെയ്തപ്പം തന്നെ ഞാൻ അത് പൊട്ടിച്ച് നോക്കി നോക്കിയപ്പം അതിന്റെ ആ ഷൂവിന്റെ ലേസ് കോര്ക്കുന്ന ഭാഗം അത് പൊട്ടി ഇരിക്കുവാണേ അപ്പം ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു അതിന്റെ നമ്പർ സഹിതം നിങ്ങള്ക്ക് ഇട്ടുതന്നാൽ അത് എനിക്ക് റിട്ടേണ് ചെയ്ത് തരുമോ ഞാനേ അതിനിനി പ്രത്യേകിച്ച് പുതിയ ഐറ്റംസ് വേറെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഡെലിവറിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ ഇത് ചെയ്ത് തരാം ഫോട്ടോ എടുത്ത് ഇട്ട് തരാം ഇപ്പോൾ എനിക്ക് ഈ സാധനം റിട്ടേൺ ആണ്